നടുവേദനക്ക് ഉള്ള നാട്ട് ഗ്രാമങ്ങളിലിള്ള ഒരു വൈവിദ്യങ്ങളാണ് നടു നടുവുയ്യും കൊയാമ്പുകളുപയോഗിച്ച് പച്ചമരുന്നുകളൊക്കെ അരച്ചിട്ടൊക്കെ നടു ഒയ്യും അതിന് വൈദ്യരുണ്ടാവും നടു ഒയ്യുന്നതിന് അതിനെ അതിനായിട്ടുള്ള നടുവേദനക്ക് ഇങ്ങനെയുള്ള പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ഉയ്യാനുള്ള സംവിധാനങ്ങളും അതിനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ടാകും അങ്ങനെയാണ് നടുവേദനയ്ക്ക് നടുവേദന മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്